സമ്പൽസമൃദ്ധിയുടെ നാടാണ് കോട്ടയം കോട്ടയത്തിൽ കാർഷിക ഉല്പാദനവും കാർഷിക പ്രോത്സാഹനവും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ബിസിനസ്സും അഥവാ കാലക്രമേണയുള്ള വികാസം പ്രാപിച്ച ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് റബ്ബറ് വ്യവസായം തന്നെയാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്രാൻഡ് ആകുന്ന എം ആർ എഫ് ടയർസ് പോലും അതിൻ്റെ ഒരു പ്ലാൻറ് പോലും കോട്ടയം ജില്ലയിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ റബറിന്റെ വൈവിധ്യങ്ങളാണ് റബ്ബറ് കൃഷിയാണ് റബ്ബർ കൃഷി എന്ന് പറയുമ്പോൾ പണ്ടുകാലം തൊട്ടേ കേരളത്തിൽ പേരുകേട്ട ഒരു ജില്ലയാണ് റബ്ബറിൽ കോട്ടയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി നമുക്ക് കാണാൻ സാധിക്കുന്നത് കോട്ടയത്താണ് അതുപോലെ അതുമാത്രമല്ല കാർഷികത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങൾ മനോരമ അതുപോലെ മാതൃഭൂമി പോലുള്ള പത്ര സ്ഥാപനങ്ങൾ തുടക്കം കുറിച്ചത് പോലും കോട്ടയത്താണ് അക്ഷരനഗരി എന്നറിയപ്പെടുന്ന ഈ കോട്ടയത്താണ് പല വ്യവസായങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഈ ജില്ലയെ കേരളത്തിലെ ഒരു പ്രധാന ജില്ലയായിട്ട് നില കൊള്ളിക്കുന്നതും ഇവിടത്തെ വൈവിധ്യങ്ങളാവുന്ന കൃഷിയും വൈവിധ്യങ്ങളാവുന്ന സ്ഥാപനങ്ങളും വ്യവസായ രംഗങ്ങളുമാണ് കാലക്രമേണേ പല മാറ്റങ്ങൾ വന്നെങ്കിലും ഇപ്പോഴും മാറ്റമില്ലാതെ നിലകൊള്ളുന്നത് കോട്ടയത്തെ റബ്ബറിൻ്റെ ഉത്പാദനം തന്നെയാണ് ഏതൊരു വീട്ടിലേക്ക് കോട്ടയം ജില്ലയിലെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാലും നമുക്കവിടെ റബ്ബറിൻ്റെ വൈവിധ്യങ്ങളാകുന്ന രൂപങ്ങൾ അവരുടെ പറമ്പിലും തോട്ടങ്ങളിലും റബ്ബർ കൃഷി ധാരാളമായി തന്നെ നമുക്ക് കാണുവാൻ സാധ്യമാകും വൈവിധ്യങ്ങളാകുന്ന റബ്ബറുകൾ അതുപോലെ കൃഷി കാർഷികതക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല കോട്ടയത്തിലെ വാകത്താനം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നാമുപയോഗിക്കുന്ന കപ്പ എന്ന് പറയുന്ന ടപിയോക്ക ആദ്യമായി കൃഷി ചെയ്യപ്പെട്ടത് വാകത്താനത്തിൽ നിന്നാണ് കപ്പയുടെ കയറ്റുമതി ആദ്യമായി ആരംഭിച്ചത് ഈ വാകത്താനം തന്നെയാണ് എൻ്റെയും ഗ്രാമം അതുപോലെ തന്നെ അനേകം സ്ഥലങ്ങൾ കാഞ്ഞിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായി റബ്ബറിൻ്റെ വൈവിധ്യം കാണുവാൻ സാധ്യമാകുന്നത് ആ വൈവിധ്യങ്ങളാവുന്ന റബ്ബറുകൾ കൂടുതലും ഈ ജില്ലയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലോകത്തിലെ തന്നെ പ്രശസ്തനാകുന്ന എം ആർ എഫ് ടയർസിൻ്റെ ഒരു പ്ലാൻറ് കോട്ടയം വടവാതൂർ സ്ഥാപിക്കപ്പെട്ടത് മാറ്റമില്ലാതെ തുടരുന്ന കൃഷിയുടെ വൈവിധ്യങ്ങളാകുന്ന വ്യവസായ രൂപങ്ങളാണ് കോട്ടയം ജില്ലയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് കേരളത്തിലെ ലോകോത്തര നിലവാരമുള്ള ഒരു ജില്ലയായിട്ട് കോട്ടയം ജില്ല മാറ്റപ്പെട്ടത് അക്ഷര നഗരിയുടെ നാടാണ് കോട്ടയം നമ്മുടെ മലയാളത്തിലെ പത്രങ്ങൾ ആകുന്ന മനോരമ മലയാള മനോരമ മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ തുടക്കം കുറിച്ചത് കോട്ടയത്താണ് അതും കോട്ടയത്തിന് വ്യവസായ രംഗത്ത് വൻ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിച്ചു എന്ന് പറയട്ടെ